ആ ഇത് മസാലദോശ ഉണ്ടോ

മസാലദോശ വേണമായിരുന്നു

ഒരു പത്ത് എണ്ണം മതി എത്ര റേറ്റ് എത്രയാവും എമ്പത് രൂപയോ കുറച്ച് കുറച്ചൂടേപ്പാ

നിങ്ങൾ എങ്ങനെ ആട്ന്ന് ഇതാക്കുന്ന കൊറിയർ കൊടുക്കുന്നത് അയച്ചു ആ അല്ല ആ അത് കൊടുക്കാം അതെ

ആ ആ ആ ഷെഫ് നൂർ ആണ് ആ ഷെഫ് നൂർ ല്ലേ

ആ വേറെ എന്ത് ഉണ്ട് അവിടെ ബെൻസ് ഉണ്ടോ

ബെൻസും ഹോളി ഗെയും എടുത്തോ ഹോളി വച്ചാൽ അഞ്ച് പ്ലേറ്റ് മതി

ആ മതി ബെൻസ് വേണ്ട ആ ശരി ആ ആ കൊടുക്കാം ആ ഓക്കെ